ആ ചികിത്സന്റെ സഹായം വച്ച് നോക്കുമ്പം നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരൂ നമ്മളെ ഒരൂ ചുറ്റുപ്രദേശം അല്ലെങ്കിൽ നമ്മളുടെ സ്ഥലത്ത് നിന്ന് പറയുന്നത് വിചാരിച്ചാൽ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റല് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിലും പിന്നെ ഒരൂ ഒരു പനിയോ കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യങ്ങളോടെ തന്നെ പോകാന് പറ്റുന്ന ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കൊ ഉണ്ട് അധിക ദൂരം യാത്ര വരാതെ തന്നെ സൗകര്യം അത്യവശ്യം സൗകര്യങ്ങളും അവിടെ ചെന്നാൽ ഉള്ള സര്വീസും കാര്യങ്ങളുമൊക്കെയാണ് പിന്നെ അത്പോലെ തന്നെ നിലമ്പൂർ കാര്യങ്ങളാണ് പിന്നെ ഞങ്ങൾ കുറച്ച് എന്തെങ്കിലും കൂട്തലായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഫാമിലിക്കോ ഒരു പ്ക്ഷെ ആക്സിഡൻ്റോ അല്ലെങ്കിൽ ഒരു മേജര് സര്ജറിയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം നമ്മളെ അടുത്തുള്ള ഹോസ്പിറ്റലുകളൊന്നും ചിലപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യും കുറച്ച് ദൂരത്തേക്ക് അല്ലെങ്കിൽ കോഴിക്കോടൊ അല്ല പെരിന്തല്മണ്ണയോ മഞ്ചേരിയൊക്കെയാണ് ചെയ്യാറുള്ളത് അല്ല കുറഞ്ഞുള്ള ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം ദൂരം പ്രയാസപ്പെടാതെ വണ്ടൂർ ഉള്ള ഭാഗങ്ങളില് പോയാൽ തന്നെ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് കിട്ടാറുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇത് വരെ കിട്ടിയിട്ടില്ല പക്ഷേ ചികിത്സാ സൗകര്യം കൂട്തൽ നമുക്ക് ഇതേപോലെ ടൗണുളിൽ തന്നെയാണ് അത്കൊണ്ട് തന്നെ അങ്ങോട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും എമര്ജന്സി കേസോ ചിലപ്പം ഇവിടെ എടുക്കാത്ത ഒരു കേസൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പം ദൂരത്തെന്നെയാണ് പോവുക അത് അതിന് ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധി വരെയുള്ളതൊക്കെ നമ്മൾ നമ്മളെ അടുത്ത് തൊട്ട് അടുത്തുള്ള പ്രദേശങ്ങളിലും ഹോസ്പിറ്റലുകളിൽ തന്നെ പോയിട്ടുള്ളത്